ചെറിയ മീനോടാണ് ഇഷ്ടം ചെറിയ മീൻനാത്താണെങ്കിൽ ഒത്തിരി കാൽസ്യങ്ങളൊക്കെ ഒത്തിരി അടങ്ങിയിട്ടുണ്ട് മത്തി മത്തിയെന്നു പറഞ്ഞ നല്ല സാധനമാണ് നമ്മുടെ എല്ലിനൊക്കെ നല്ല ബലം അതിൻ്റെ മുള്ളുപോലും നമ്മൾ കടിച്ചു തിന്നണമെന്നു പറയുന്നെ നമ്മുടെ എല്ലുകൾക്കൊക്കെ ഒത്തിരി ബലം നൽകാനും നമ്മുടെ മജ്ജയ്ക്കൊക്കെ അതിൻ്റെ മുള്ളിനകത്തൊരു മജ്ജയുണ്ട് ആ മജ്ജ നമ്മുടെ ശരീരത്തിന്റെ മജ്ജയ്ക്കൊക്കെ വളരെ നല്ലതാണ് പ്രതിരോധശക്തിക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് മത്തി അതു കാരണം കഴിവതും നമ്മൾ മത്തിയൊക്കെ ഉപയോഗിക്കുക വലിയ മിനൊക്കെ ഉപയോഗിക്കരുതെന്നല്ല വലിയ മീനും നല്ലതാണ് ഏറ്റവും നല്ലത് വലിയ മീനിൻറ്റകത്ത് സ്രാവ് പാൽസ്രാവെന്നു പറയും അതു നമ്മുടെ അതിതു പോലെ തന്നെ മരുന്നാണ് പാൽ സ്രാവ് നമ്മൾ നല്ലതായിട്ട് കുടമ്പുളിയൊക്കെ ഇട്ടങ്ങോട്ടു വെച്ച് കറി വെച്ചു കഴിഞ്ഞാൽ അത് ഈ ഗർഭ കാലത്തൊക്കെ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്ക് കൂടുതൽ കൊടുക്കും മീനൊന്നും കൂട്ടാൻ പറ്റത്തില്ല എങ്കിലും ഈ സ്രാവിൻ്റെ ഇത് എന്നുവെച്ചാൽ അത് നമ്മുടെ ശരീരത്തിനു ദോഷമല്ലാത്തതു കൊണ്ട് അതൊക്കെ ഇങ്ങനെ ഒരു കഷ്ണം വെച്ചൊക്കെ നമ്മൾ കഴിക്കാൻ കൊടുക്കുന്ന വളരെ നല്ലതാണെന്നാണ് പണ്ടുള്ളവരൊക്കെ പറയുന്നത് പിന്നെ ആറ്റു മീൻ ആറ്റു മീനെന്നു പറഞ്ഞാൽ എന്ന കരി മീനുണ്ട് വാളയുണ്ട് ചെമ്പല്ലിയുണ്ട് പിന്നെ പരല് അങ്ങനെയൊക്കെയുള്ള പല സൈസ് ആറ്റ് മീനും നല്ല ഗുണമൊക്കെയുള്ള ഇതാണെ കൂടുതലും എല്ലാവരും ഈ ചെറിയ മീൻ കൊച്ചു പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വയമ്പൊക്കെ വറുത്ത് കഴിക്കാനായിട്ടൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നു വെച്ചാൽ നല്ല മൊരിഞ്ഞ നല്ല കരിമുരാന്നത് അത് ഇതുപോലെ തന്നെ നല്ല ഗുണമുള്ള കറി വറുത്തു കൂട്ടുന്നതിനേക്കാട്ടിലുമൊക്കെ നല്ലത് നമ്മൾ കറി വെച്ചൊക്കെ കൊടുക്കുന്നതാണ് പിന്നെ മത്തിയൊക്കെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക മത്തിയിലൊക്കെ ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്ക് മോദെയെന്ന് മോദയും പാൽസ്രാവുമാണെനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള മീൻ വെച്ചാൽ പാൽസ്രാവെവിടെ കണ്ടാലും പുള്ളിക്കാരൻ മേടിച്ചു കൊണ്ടു വരും കാരണമെന്നായെന്നു വെച്ചാൽ പാൽസ്രാവെനിക്കതുപോലിഷ്ടമാണ് മോദെ എനിക്കിഷ്ടമാണ് അതിന്റെയൊക്കെ കഷ്ണങ്ങൾ കൂട്ടുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് നമുക്കാ മീങ്കറി തൻ മാത്രം മതി നമുക്ക് ചിലപ്പം ചോറുണ്ണാനായിട്ടും ഒക്കെ അതുപോലെതന്നെ മാത്തിയൊക്കെയാണെങ്കിലും നമ്മൾ നല്ലതായിട്ട് ഈ കുരുമുളകൊക്കെ ഇട്ടങ്ങോട്ട് വറുത്തു വെച്ചു കഴിഞ്ഞാൽ ഉയ്യൊ എന്താ അച്ചാറിടാനും നല്ലതാണ് മത്തി മത്തിയേതു രീതിയിൽ വേണേലും നമുക്കുപയോഗിക്കാം നമ്മുടെ പിള്ളേർക്ക് കുഞ്ഞിലെ തന്നെ നമ്മൾ മത്തി നല്ലതായിട്ടു മൊരിച്ചിട്ടു നല്ലതായിട്ടു മൊരിക്കണം മൊരിച്ചിട്ട് അതു മിക്സിക്കകത്തിട്ടടിച്ചു നമ്മൾ ചോറിനകത്തിട്ട് മുള്ള് അന്നേരം കാണുകേല അന്നേരം ചോറിനകത്തിട്ടിളക്കിക്കൊടുത്താൽ പിള്ളേർക്ക് അത് വളരെ പിള്ളേർക്കും മത്തിയൊക്കെ അതുപോലെതന്നെ നമ്മൾ ഈ വാഴയിലയ്ക്കകത്തു വെച്ച് പിന്നെ ആവി കയറ്റിയെടുത്ത് മത്തിയൊക്കെ കഴിക്കുന്നത് നല്ലതാണെ അങ്ങനെ കഴിക്കുമ്പോഴത്തേനും ഒത്തിരി എണ്ണമയമൊന്നും നമ്മുടെ വയറ്റിൽ ചെല്ലത്തില്ല അതു കൊണ്ട് മത്തിയും മത്തിയായിരിക്കും കൂടുതലാൾക്കാരിഷ്ടപ്പെടുന്ന മീനെന്നാണ് എനിക്കു തോന്നുന്നത് കാരണം എന്നാച്ചാൽ ഇപ്പം മത്തിയോടാണെല്ലാവർക്കും ഇപ്പം ഡോക്ടർമാരാണെങ്കിലും നമ്മളോടു പറയ്യുന്നത് നമ്മൾ മത്തി കൂടുതൽ കഴിക്കുക മത്തിയിലൊത്തിരി ഗുണങ്ങളുണ്ട് മീനകത്തൊക്കെ അതുപോലെതന്നെ ഈ ചെറിയ ആറ്റു മീനിന്റെ ചെറിയ ചെറിയ മീനുകളിലാണ് വലിയ മീനിനുള്ളതിനെക്കാട്ടിലും ഒത്തിരി ഗുണങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത് അതു കാരണം എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കുവെല്ലാ മീനും ഇഷ്ടമാണ് എങ്കിലും വലിയ മീനിനെ കാട്ടിലും ഏറ്റവും നല്ലത് ചെറിയ മീൻ തന്നെ ഉപയോഗിക്കുന്നതാണ്